ആ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേരും പകുതി പേർക്കും എന്താ പറയുക എല്ലാവരും മലയാളത്തിലോട്ടൊരു താല്പര്യമില്ല ഞാൻ പഠിക്കുന്നത് മലയാളം സബ്ജക്റ്റാണ് എനിക്ക് കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതായി ഞാൻ ഇപ്പോഴത്തെ പിള്ളേർ എന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പിള്ളേർക്ക് പകുതി പേർക്കും മലയാളം പഠിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലാ എല്ലാവരും പുറത്ത് പോയി പഠിക്കാനും താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഇപ്പം എല്ലാവരും ഇംഗ്ലീഷ് തന്നെയാണ് പഠിപ്പിക്കാൻ നോ പഠിക്കാൻ നോക്കുന്നത് പക്ഷെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് നമ്മുടെ പഴയ നമ്മളെങ്ങനെ വളർന്നു എങ്ങനെ വന്നെന്ന് അവർക്കറിയിക്കണം അപ്പം നമ്മൾ മലയാളം പഠിപ്പിക്കുന്നതിലൂടെ അവർക്കത് മനസ്സിലാകണം ഇപ്പം മലയാളം പഠിപ്പിക്കുന്നതോടെ എന്താ പറയുക പല കാര്യങ്ങളും അവരെ മനസ്സിലാക്കുകയും പിന്നേ സ്റ്റേയ്ക്കിങ്